കൃഷിയിലും വീട്ടുമുറ്റത്തും വളർത്തുന്ന ചില കോഴികളാണ് താറാവുകൾ ഗ്രാമലക്ഷ്മി ഗിരി രാജ കരിങ്കോഴി നാടൻ കോഴികൾ മുതലായവ ഇതിൽ ഞങ്ങൾക്ക് ഗ്രാമലക്ഷ്മിയും കരിങ്കോഴിയും ഉണ്ട് അതിൽ വള അതെല്ലാം വളരെ നന്നായി വളരുന്നുണ്ട് കോഴിയിൽ നിന്ന് നമുക്ക് ധാരാളം കോഴി മുട്ട ലഭിക്കുന്നു അത് അതുകൊണ്ട് തന്നെ ബിസി എൻ്റെ ബിസിനസ്സ് ഒരു വിധം നല്ല രീതിയിൽ നടന്ന് പോകുന്നു മാത്രമല്ല നാടൻ കോഴിക്കും കോഴി മുട്ടക്കും കോഴിയിറച്ചിക്കും എല്ലാം ആൾക്കാർ വരുന്നത് കൊണ്ട് നല്ല രീതിയിലാണ് എൻ്റെ കച്ചവടം എൻ്റെ ബിസിനസ്സ് നടന്ന് പോകുന്നത് ധാര ഞാൻ ഇൻക്യൂബേറ്റർ വഴി വെച്ച് ഇൻക്യൂബേറ്റർ ഉപയോഗിച്ച് കോഴി കുഞ്ഞുങ്ങളെ വളർത്തി കോഴി കുഞ്ഞുങ്ങളും വിൽക്കുന്നുണ്ട് കോഴികൾക്ക് ആവശ്യമായ തീറ്റയും കൂടാതെ അവരുടെ ചിലവ് കഴിച്ച് എനിക്ക് കോഴിയുടെ ബിസിനസ്സിൽ നിന്ന് ധാരാളം ലാഭം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ്സ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നു